ഹലോ കോള റെസ്റ്റോറൻ്റ് അല്ലേ ആ എനിക്ക് ഇച്ചിരി ഫുഡ് ഐറ്റംസ് വേണമായിരുന്നു അവിടെ എന്തൊക്കെയുണ്ട് ആ ആ ആ ആ എനിക്ക് ഇന്ന് വൈകിട്ടേത്തൊക്കെ ഒരു പ്ലേറ്റ് കരിമീൻ പൊള്ളിച്ചതും കരിമീൻ ഫ്രൈയും വേണം അപ്പം അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ആ ആ ആ ആ ഉണ്ട് ആ അ ആ ആയെ അ അ അ എനിക്ക് ഇവിടെ എത്തിച്ചു തരണം ഇന്ന് വൈകിട്ട് എനിക്ക് ഇവിടെ എത്തിച്ചു തരണം അതെ ഈ കരിമീൻ ഫ്രഷ് ആണോ അതോ ഇച്ചിരി ഇതൊക്കെയാണോ എങ്ങനെയാണ് ഫ്രഷ് ആണോ ഇത് ആ അ ആ ആ ആ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള കിട്ടണം എന്നാച്ച ഗസ്റ്റൊക്കെ വരുന്നതാണ് അതു കൊണ്ട് ആ ഗസ്റ്റൊക്കെ വരുന്നു അതുകൊണ്ട് എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടണം ആ പിന്നെ പിന്നെ എന്തുവാണ് ഉള്ളത് അവിടെ ആ ആ അതെ ആ ആ അപ്പവും താറാവ് ഇറച്ചിയും ആ ആ ആ ഞാൻ അത് പറയാം എനിക്ക് ഇപ്പോൾ ഇന്നത്തേക്ക് ഇത് മാത്രം മതി അത് ഞാൻ പിന്നെ ഓഡർ ചെയ്തോളാം പിന്നെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഓഡർ ചെയ്യാം അന്നേരത്ത് എനിക്ക് തന്നാൽ മതി ഇപ്പം എനിക്ക് ഈ ഒരു പ്ലേറ്റ് കരിമീൻ പൊള്ളിച്ചതും ഒരു പ്ലേറ്റ് കരിമീൻ ഫ്രൈയും തരണം എ അ അപ്പോൾ അത് ഇന്ന് വൈകിട്ട് ഒരു അഞ്ചുമണിയോടു കൂടി എനിക്ക് ഇവിടെ വീട്ടിൽ എത്തിച്ചു തരണം അപ്പോൾ അതിൻ്റെ പൈസ എങ്ങനെയാണ് പേ ചെയ്യുന്നത് ആ ആ അ കൊടുത്തു വിടുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ ഞാൻ അന്നേരം അത് വീട്ടിൽ കാണും അന്നേരത്തേക്ക് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് വേണം കൊണ്ടു വരാനായിട്ട് അ വേറെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എനിക്ക് ഇത്ര ഐറ്റം മതി ബാക്കി ഞാൻ പിന്നെ ഞാൻ പറയാം അന്നേരം അപ്പോഴത്തേക്കും നിങ്ങൾ അതെനിക്ക് കൊണ്ടു തന്നാൽ മതി ഇപ്പം എനിക്ക് ഇത്രയും ആവശ്യമേ ഉള്ളൂ ഇപ്പം ഈ ഫ്രൈയും ഇതും കൂടെ എന്നാ കരിമീൻ പൊള്ളിച്ചതും മതി കേട്ടോ ഓക്കെ ആ ഇത് കരിവാറ്റ കരിവാറ്റ കൊണ്ടു വന്നാൽ മതി ഓക്കെ